ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞ്ച്ച് കഴിഞ്ഞാൽ ഊട്ടി പോയിട്ടുണ്ട് പിന്നെ മൈസൂർ പിന്നെ ഗോവ പിന്നെ കേരളത്തിൽ നോക്കാന്ന്ച്ച കഴിഞ്ഞാൽ കുട്ടനാട് പോയിട്ടുണ്ട്

പിന്നെ കൊച്ചി എറണാകുളം ആ ഭാഗങ്ങൾ പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇതൊക്കെ പോയതിൽ നല്ല സ്പോട്ടെന്ന് പറയുന്നത് ഗോവയാണ് ഗോവയിൽ നമ്മൾ കാണണൊരു പ്ലേസസ്സൊക്കെ വളരെ ഒരു ബ്രിട്ടിഷ് ടച്ച് ഉള്ളൊരു സ്ഥലങ്ങളാണ് ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയിട്ടും അങ്ങനെ അവിടെ മിക്കതും ബ്രിട്ടീഷ്കാരുടെ ഒരു കൾച്ചറും ബ്രിട്ടീഷ്കാരുണ്ടാക്കിയ ഒരു ഐറ്റംസ് അതേ പോലെയാണ് മെയിൻറ്റയ്ൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഇന്ത്യൻ സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അങ്ങനെ ഉള്ളൊരു പ്ലേസ് ആണ് ഗോവ വരണേ പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് പറയപ്പെടുന്നത് തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ ഓൾ കുറേ അധികം പേര് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം ഞാൻ ഇടക്കിടക്കൊക്കെ കാണാൻ പോവാറുണ്ട് അവിടെ മഴ സീ മഴക്കാലത്താണ് ഏറ്റവും അധികം കാണാൻ പോവുകയും അപ്പം മഴക്കാലത്ത് വളരേ അധികം റിസ്റ്റാ വളരെ പരിമിതിയായിട്ടൊക്കെ കാ അവിടേക്ക് അധികം കടത്താറില്ല കാരണം നല്ല കുത്തൊഴുക്കിലാണ് വെള്ളമൊക്കെ വരാറ് അത് കാണാൻ തന്നെ നല്ല ബീറ്റെ നല്ല സൗണ്ടും അതിൻ്റെ വെള്ളത്തെ വെള്ളം ഇങ്ങനെ അടിക്ക് വീണതിൻ്റെ ശീതളടിക്കും നമുക്ക് പുറത്ത് നിന്നാൽ ശീതളടിക്കുന്നത് കാണാനൊരു അനുഭവം തന്നെ വളരെ നല്ലൊരു എസ്പീരിയൻസാണ് പിന്നെ കുട്ടനാട് കുട്ടനാടെന്ന് പറയുന്നതാണ് ഒരു നെയ്ച്ചറ് ഭംഗി ഇപ്പോൾ കേരളം ഇപ്പോൾ ഇന്ത്യയിലും ലോകം എവിടുന്ന് ഇപ്പോൾ വളരെ അധികം മാഞ്ഞ് പോകുന്നൊരു സംഭവമാണ് നെയ്ച്ചർ പ്രകൃതി ഭംഗി പോയി കിട്ടാണ് എല്ലായിടത്ത് നിന്നും അങ്ങനെ പോയി കിട്ടുന്ന സമയങ്ങളിൽ കുട്ടനാട്ടിൽ ഇപ്പോഴും നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണെനിക്ക് തോന്നിയത് ഇനിയും കാണാൻ കുറേ അധികം സ്ഥലങ്ങളും കുറേ അധികം ഭംഗിയേറിയതും ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഗോവ ഈ അതിരപ്പള്ളി കുട്ടനാടൊക്കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത്